ഹലോ ആ പറ പറയൂ സാർ ഉറപ്പ് ആയിട്ടും വിൻ ചെയ്യും അതൊക്കെ നല്ല അതിൻ്റെ എന്നാത് നടപടിയ്ക്ക് തന്നെ പോവുന്നുണ്ട് വേണം പിന്നെ പിള്ളേർ കുറച്ച് പുറകോട്ട് ആണ് അവരെ ഒക്കെ നല്ല മുന്നോട്ട് വന്ന് ഞാൻ ചെയ്തോളാം രാവിലെയും വൈകിട്ടും വൈകിട്ട് പിള്ളേർ വരുന്നത് കുറവ് ആണ് പക്ഷേ നമ്മൾ അത് എങ്ങനെയോ സ് വിളിച്ച് പിള്ളാരെ വിളിച്ചിട്ട് രാവിലെയും വൈകിട്ടും അവർക്ക് വേണ്ട ഇത് കൊടുക്കുന്നുണ്ട് ആ അതെ അത് നമ്മൾ അങ്ങനെ ആണ് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് കുട്ടികൾക്ക് വരാൻ മടി കാണിക്കുന്നുണ്ട് അതാണ് നമുക്ക് വരുന്ന പ്രശ്നം അപ്പം ആ ഒരു സെക്ഷനിലെ പിള്ളേർക്ക് അല്ല ബാക്കി ഉള്ള പിള്ളേരെ വെച്ച് നമ്മൾ വിൻ ചെയ്യും ചില പിള്ളേർ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ച് ഇരിക്കുന്നത് വെച്ചാൽ എല്ലാ ദിവസവും വരുന്ന അങ്ങനെ ഉള്ള പിള്ളേർ ഒരു പതിനെട്ട് പേരെ നമ്മൾ എടുത്തിട്ട് ബാക്കി ഉള്ളവരെ മാറ്റാമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനിക്കുന്നേ ഇപ്പോൾ നാളെ അങ്ങനെയുള്ള ഒരു പതിനെട്ട് പേരെ നമ്മൾ കണ്ട് വെച്ചിട്ട് ഉണ്ട് അവർ നല്ല രീതി അവർ ഫിസിക്കൽ ഒക്കെ നല്ല രീതി മാറീട്ട് അവർ നല്ല രീതി കളിക്കുന്നും ഉണ്ട് ഈ വരുന്ന ടൂർണമെൻറ്റ് നമ്മൾതന്നെ കപ്പ് അടിക്കാനുള്ള എല്ലാ സാധ്യതകളും അവരെ വെച്ച് നമ്മൾ മുൻ നിർത്തി നമ്മൾ കപ്പ് അടിക്കും ആ ആ സെൻഡ് ചെയ്യാം ആ പറയാം മാഡം നമ്മൾ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ആ പതിനെട്ട് കുട്ടികളുടെ ലിസ്റ്റ് ഞാൻ മാഡത്തിന് സെൻഡ് ചെയ്യാം പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ഥലങ്ങളിൽ നമ്മൾ ഒരു പരുക്കിൻ്റെ കുറച്ച് കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ഇത് ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഇഷ്യൂ ആണ് നമ്മൾക്ക് ഇപ്പം മെയിനായിട്ട് ഗ്രൌണ്ടില് വേറെ ഇത് വരുന്നതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ട്

ആ എന്നാ പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പരുക്ക് ആയ കുട്ടികളാണ് അവരെ മാറ്റി ഉള്ള ഒരു ഇത് നമ്മൾ സെറ്റ് ആക്കീട്ട് ഉണ്ട് ഇപ്പോൾ ബാക്കിയുള്ള പിള്ളേരെയും കൂടെ വിളിച്ച് നമ്മൾ ഒരു മാതിരി ഇപ്പോൾ ഇത് എല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇനി ലാസ്റ്റ് ആയിട്ട് ടൂർണമെൻറ്റ് ഒരു മൂന്നാല് ദിവസം മുന്നേ നല്ല പോലെ ട്രെയിനിംഗ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കപ്പ് കിട്ടും അല്ല അങ്ങ് ഉറപ്പാണ് ഈ മാസം എങ്ങനെ ആണെങ്കിലും ടൂർണമെൻറ്റ് നമ്മൾ കപ്പ് അടിച്ചിട്ട് തിരിച്ച് വരത്തുള്ളൂ അത് സെറ്റ് ആക്കിക്കോ ആ ഓക്കെ ഓക്കെ മാഡം സെൻഡ് ചെയ്യാം ഓക്കെ